വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വിദ്യാർത്ഥികളെ നല്ല രീതിയിലും ഒപ്പം തന്നെ മോശമായ രീതിയിലും ബാധിക്കുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നമുക്ക് ആദ്യം നല്ല രീതിയെക്കുറിച്ച് ചിന്തിക്കാം വിവര സാങ്കേതിക വിദ്യയുടെ ഒരു കാലത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഇന്ന് ഒരു വിദ്യാർത്ഥിക്ക് ഒരസൈൻമെൻറ്റ് വെക്കുകയോ ഒരു ഹോം വർക്ക് ചെയ്യുകോ ചെയ്യുന്ന സമയത്ത് കുറെ കാര്യത്തിൽ അവന് തന്നെ അവൻ്റെ എന്താണ് ചിന്താശേഷി വർദ്ധിപ്പിക്കും ഇങ്ങനെ വിവര സാങ്കേതിക രംഗത്തുള്ളത് ഉദാഹരണമായിട്ട് അവനൊരു പ്രൊജക്റ്റ് വെക്കാനുണ്ട് ഇപ്പോൾ ഒരു പുതിയ എന്തെങ്കിലും സ്വന്തമായി കണ്ടുപിടിച്ച് വെക്കാനുള്ള ഒരു പ്രൊജക്റ്റാണെന്ന് നമുക്ക് ചിന്തിക്കാം അപ്പം അവൻ അവൻ എന്ത് ചെയ്യും ഈ വിവര സാങ്കേതികയുടെ ലഭ്യതയെ പറ്റി മനസ്സിലാക്കി അവൻ ഗൂഗിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്യും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം അവന് കൊടുത്തിരിക്കുന്ന ഒരസൈൻമെൻറ്റ് ഇൻറ്റർനെറ്റ് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനെ പറ്റിയാണെന്ന് വിചാരിക്കാം നമുക്ക് ഇനി ആദ്യമായി ഇവൻ പോയി മനസ്സിലാക്കി എന്താണ് ഒരു സെർച്ച് എഞ്ചിൻ എന്നവന് മനസ്സിലാക്കാൻ പറ്റും അപ്പം അവന് മനസ്സിലായി ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് എക്സ്പ്ലോറർ എഡ്ജ് ബ്രൗസർ സഫായി ഇതൊക്കെയാണ് ഒരു സെർച്ച് എഞ്ചിൻ ഇനി ഞാൻ എങ്ങനെയാണ് ഇവനെ ഉണ്ടാക്കേണ്ടത് എന്നാണ് ഇവൻ അടുത്ത ചിന്തിക്കാൻ പോകുന്ന് അപ്പം ഇത് പുറമേയുള്ള അവൻ്റെ വീട്ടുകാരുമായി ചർച്ച ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവർക്ക് അറിയാവുന്നവർ ആയിരിക്കാം അല്ലെങ്കിൽ അറിയാത്തവരും ആയിരിക്കാം അപ്പം ഇവനെ ഈ വിവര സാങ്കേതികളുടെ നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കുറെ ഇൻഡിപ്പെൻഡൻറ്റാക്കുകയാണ് ചെയ്യുന്നിരുന്നത് അപ്പം അവൻ്റെ ചിന്താശേഷിയെ ഇത് വർദ്ധിപ്പിക്കും അപ്പം അവനെന്ത് ചെയ്യും ഓക്കെ അവൻ ഗൂഗിളിൽ പോയി മനസ്സിലാക്കി ഇതാണ് ഒരു സെർച്ച് എഞ്ചിൻ ഇനി ഇതിനെ എങ്ങനെ ഉണ്ടാക്കാം അതും അവൻ വീണ്ടും ഏതെങ്കിലും എ ഐയോഡോ അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ മനസ്സിലാക്കും എങ്ങനെയാണ് ഒരു ക്രോം ബ്രൗസർ എനിക്ക് നിർമ്മിക്കാനാവുക അതിനെന്ത് വേണം ഒരു എച്ച്ടിഎംഎൽ പേജ് വേണം ഈ എച്ച്ടിഎംഎൽ പേജ് ഞാനെങ്ങനെ ചെയ്യും അതിന് എന്ത് മനസ്സിലാക്കണം എനിക്ക് അതിനുള്ള ഒരു എച്ച് ടി എം എല്ലിന്റെ പരിപാടികൾ ഞാൻ മനസ്സിലാക്കണം അപ്പം അവൻ അവൻ സ്വതസൂദ്ധമായി അവനീ പരിപാടികൾ ചെയ്യാൻ സാധിക്കും അപ്പം അവൻ ആദ്യമായി എന്ത് ചെയ്യും ഇതാണ് സെർച്ച് എഞ്ചിൻ എന്നുള്ളതിനെപ്പറ്റി അവൻ ഒരു മുൻ അവൻ സ്വമേതായ മനസ്സിലാക്കും എന്നിട്ട് അവൻ ഇതിന് പ്രോഗ്രാമിങ് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നു ഇനി അവൻ ഏതെങ്കിലും ഒരു പ്രോഗ്രമവൻ സെർച്ച് ചെയ്യും ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് എച്ച് റ്റി എം എല്ലോ പി എച്ച് പിയോ ജാവാ സ്ക്രിപ്പ്ട്ടോ ജാവയോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവൻ തെരഞ്ഞെടുക്കുന്നു ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് അവനെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൻ അവനൊരു തീരുമാനത്തിൽ എത്തുന്നു എന്നിട്ട് ഇതിനെ അവൻ്റെ മെഷീൻ അവൻ്റെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിൽ പോലും അവനിത് വെച്ച് ചെയ്ത് പ്രവർത്തിപ്പിച്ചു നോക്കാം അങ്ങനെ അവൻ്റെ സ്വമേതയ പ്രവർത്തി വെച്ചിട്ട് അവന് ഒരു പരിധിവരെ ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നു അത് വളരെ മികച്ചൊരു തിരുമാനമാണ് കാരണം അവൻ്റെ ചിന്താശേഷിയേയും ഒപ്പം അവൻ്റെ സൊസിത്രമായി റിസർച്ച് ചെയ്യാനുള്ള അവൻ്റെ കഴിവിനെയും ഇത് വർദ്ധിപ്പിക്കും ആ രീതിയിൽ നോക്കുമ്പോൾ ഈ വിദ്യാഭ്യാസ രംഗം ഭയങ്കര മെച്ചമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്കൊക്കെ മുന്നേ ഉദാഹരണത്തിന് ഒരു ലാബ് ഒരു ബയോളജി പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ എന്താണ് ജെസ്റ്റ് ബുക്കിൽ പടങ്ങളുമായിട്ടാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഇനി ഇതിനെ മാറ്റി മാറ്റാനുള്ളൊരു അവസരമാണ് നമുക്ക് ഉള്ള അത് പിന്നീട് സ്മാർട്ട് ക്ലാസ് റൂമുകളിലായി സ്മാർട്ട് ക്ലാസ് റൂമുകളിൽ വിദ്യാർത്ഥികൾ പ്രൊജക്ടർ വഴി ഇതാണ് ഹൃദയമെന്നും ഇങ്ങനെ ഇങ്ങനെ എല്ലാം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കണ്ടു പിടിക്കാൻ പറ്റും കുറച്ചൂടെ വായിച്ചറിയുന്നതിനേക്കാൽ കൂടുതൽ കണ്ടറിയുമ്പോൾ നമ്മുടെ മനസ്സിലതിനെ കുറച്ചൂടെ നിൽക്കും ഉദാഹരണമായ് എൻ്റെ ഇതാണ് എൻ്റെ ഈ ഞരമ്പിലൂടെയാണ് രക്തം ഒഴുകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിന്ന സ്ഥലത്താണ് എത്തുന്നൂന്ന് മനസിലാവും അപ്പം എൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തികൾ കൂടുതൽ രീതിയിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് ചെയ്യാനും എനിക്ക് ഇത് സഹായിക്കുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വിദ്യാഭ്യാസ സാങ്കേതികവിദ്യ നമ്മുടെ കൂടുതൽ അറിവുകൾ വളരാൻ നല്ല രീതിയിൽ സഹായിക്കുന്നത് കൊണ്ടാണ് ഈ സാങ്കേതികവിദ്യ ഇപ്പം മനുഷ്യ ശരീരത്തെ കുറിച്ചാണ് ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പം ഒരു ബുക്കിൽ വായനകൾ വഴി ഉറപ്പായും അറിവുകൾ ഉണ്ടാവും പക്ഷേ കണ്ട് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഒരു ഉപകാരപ്രദമായ കാര്യമാണ് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുക അതായത് ഇന്നത്തെ വിർച്വൽ റിയാലിറ്റികൾ വിർച്വൽ റിയാലിറ്റിയുടെ ഒരു എൻവിറോയമെൻറ്റിലോട്ട് ഞാൻ കയറിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ മനുഷ്യ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഒരിക്കലും ഒരു ലാഭി പോലും പോകാണ്ട് തന്നെ എനിക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഈ നിർമ്മിത ബുദ്ധിയോ അല്ലെങ്കിൽ വിവര വിവര വിദ്യ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എനിക്ക് ഇതിനെപ്പറ്റി വളരെ മികച്ചൊരു അറിവുകൾ നേടാൻ സഹായിക്കും ഈ മനുഷ്യൻ്റെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു തലച്ചോറെങ്ങനെയാണ് പ്രവർത്തിക്കുന്ന തലച്ചോറിലൂടെ രക്തം എങ്ങനെ എത്തുന്നു എന്താണ് ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥ ഞാൻ ശ്വസിച്ച് കഴിഞ്ഞാൽ എൻ്റെ ശ്വാസകോഷം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ കിഡ്നിയുടെയോ കരളിൻ്റെയോ ഒക്കെ റോളെന്ന് നമുക്ക് വളരെ വ്യക്തമായ രീതിൽ മനസ്സിലാക്കാൻ ഈ സാങ്കേതിക വിദ്യ ഒരു നല്ല രീതിയിൽ സഹായിക്കുന്നു ഇനി ഇനി ഇതിൻ്റെ ഒരു മറ്റൊരു വശമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് വിദ്യാർത്ഥികൾ ജീവിതത്തെ എങ്ങനെയാണ് നോക്കാം പണ്ടൊക്കെ ഇപ്പം ഞാൻ പത്രത്തെ കൂടുതൽ വായിച്ചിരുന്ന വിദ്യാർത്ഥികൾ ആയിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും ഇൻറ്റർനെറ്റിന്നെയാണ് ആശ്രയിക്കുന്നത് അപ്പം അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ വായനാശീലം മനുഷ്യരിൽ നിന്ന് വളരെ കുറഞ്ഞു കൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഉദാഹണമായിട്ട് ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞത് പോലെ തന്നെ മനുഷ്യശരീരത്തെപ്പറ്റി അറിയണം മനുഷ്യശരീരത്തെപ്പറ്റി അിയണം എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ എന്താണ് ബുക്കുകൾ ഇതിനെ പറ്റിയുള്ള ബുക്കുകളെപറ്റി തിരയും അങ്ങനെയെല്ലാം തിരയും ഇന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏതങ്കിലും ഒരു എ ഐ ആപ്ലിക്കേഷനെ പറ്റി ഒരു വീഡിയോ എനിക്ക് എടുത്ത് തന്നാൽ പറ്റി കഴിഞ്ഞാൽ ആ പരിപാടി കഴിയും അപ്പം ഇവൻ്റെ ചിന്താശക്തി അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ശക്തി എന്തൊക്കെയാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു പരിധിവരെ നല്ല രീതിയിൽ ആ കാര്യം കുറഞ്ഞ് വരുന്നുണ്ട് വളർച്ചയോടൊപ്പം ഇതൊരു തളർച്ചയ്ക്കും ചെറിയ രീതിയിൽ എങ്കിലും ഇത് കാരണമാകുന്നുണ്ട്